ഇത്തരത്തിലുള്ള വീഡിയോകൾ വരുന്നതിന് പ്രധാന കാരണം ഇന്നത്തെ യുവ തലമുറയ്ക്ക് പല തരത്തിലുള്ള ഭക്ഷണങ്ങൾ ട്രൈ ചെയ്ത് നോക്കാനുള്ള അവരുടെ ആഗ്രഹം അതിൽ ഒരു പ്രധാന ഒരു മാർഗം ഇങ്ങനെയുള്ള വിഡിയോകൾ നിന്നുള്ള അവരുടെ റെസിപ്പിയെ റെസിപ്പികളാണ് അത് വിഡിയോയിൽത്തന്നെ പരീക്ഷിച്ച് ട്രൈ ഉപയോഗിച്ച് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളത് അവരുടെ വിനോദം ഒരു തരത്തിലുള്ള വിനോദമായി മാറി കൊണ്ടിരിക്കുകയാണ് കൂടാതെ ഈ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ഇത്തരം വീഡിയോ വീഡിയോകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനം അതും ഇത്തരത്തിലുള്ള വിഡിയോകൾ വർദ്ധിക്കുന്നതിനുള്ള കാര്യമായി മാറിയിട്ടുണ്ട് ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് പാചകത്തിലുള്ള അറിവ് വളരെ കുറവാണ് അതിനാൽ തന്നെ ഇത്തരം വിഡിയോകളിൽ കൂടിയാണ് അവർ പുതിയ തരത്തിലുള്ള പരീക്ഷണങ്ങൾ ചെയ്ത് നോക്കുകയും വിജയിക്കുകയും പാചകത്തിലുള്ള അവരുടെ കഴിവ് വളർത്താനും ഇത്തരത്തിലുള്ള വിഡിയോകൾ സഹായിച്ചിട്ടുണ്ട് ഒരു പ്രദേശത്തെ മാത്രമല്ലാതെ പല നാടുകളിൽ നിന്നുള്ള വിഭവങ്ങളും ഇത്തരത്തിലുള്ള വീഡിയോകളിൽ നിന്ന് നമുക്ക് മനസിലാക്കാൻ കഴിയുകയും അത് നമുക്ക് വീടുകളിൽത്തന്നെ പരീക്ഷിച്ചുനോക്കാൻ കഴിയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇത്തരം വിഡിയോകളുടെ ഒരു പ്രധാന ആകർഷണം കൂടാതെ തന്നെ ഈ ഇത്തരം വിഡിയോകൾക്ക് കാഴ്ചക്കാർ ഏറിയതാണ് സോഷ്യൽ മീഡിയകളിൽ ഇത്തരം വിഡിയോകൾ പ്രചരിക്കാൻ കൂടുതൽ പ്രചരിക്കാൻ എന്നുള്ളതിൻ്റെ പ്രധാന കാരണം